ബി ടെക് അല്ലെ പഠിച്ചത് അപ്പോള് ബി ടെക് ലൈഫിനെ കുറിച്ചൊന്ന് പറയാമോ എനിക്ക് പ്ലസ് റ്റു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോള് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു എഞ്ചിനീയറിംഗ് പഠിക്കാമെന്ന് അപ്പോള് ഞാൻ നോക്കിയപ്പോള് മാത്സ് എനിക്ക് പ്ലസ് റ്റുവിന് താല്പര്യമുള്ള സബ്ജക്റ്റായിരുന്നു പിന്നെ ഞാൻ അത് എഞ്ചിനീയറിംഗിന് പോവാമെന്നു കരുതി എഞ്ചിനീയറിംഗിന് ഇലക്ട്രോണിക്സ് സ്ട്രീം എടുത്തായിരുന്നു എലക്ട്രോണിക്സ് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഞാൻ എലക്ട്രോണിക്സ് സ്ട്രീമില് എഞ്ചിനിയറിംഗില് തുടങ്ങിയത് അപ്പോള് എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സാരും ഇല്ലായിരുന്നു കുറച്ച് ആദ്യമായിട്ട് ഞാന് തമിഴ്നാട് സെക്ഷനിൽ ആയതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഫ്രണ്ട്സാരുമില്ല ഇവിടെ ഉള്ളവര് ബാക്കി ഉള്ളവരൊക്കെ വേറെ ഡിഗ്രിക്കൊക്കെ പോയതുകൊണ്ട് ഞാന് എഞ്ചിനീയറിംഗിലായതും അപ്പോള് പുതിയ ഫ്രണ്ട്സിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കുറേശ്ശെ കുറേശ്ശെ എനിക്ക് ഫ്രണ്ട്സുകളെ കിട്ടിത്തുടങ്ങി ഒരു ഇരുപത് ഗേൾസും ബാക്കി ബോയ്സും ആയിരുന്നു ഗേൾസ് ഫുള് സപ്പോർട്ടൊക്കെ ആയിരുന്നു എനിക്ക് ഞാൻ അവിടെ നിന്നാണ് തമിഴ് വായിക്കാനും എഴുതാനും പഠിച്ചത് നല്ല സപ്പോർട്ടായിരുന്നു പക്ഷെ എലക്ട്രോണിക്സെന്ന് പറയുമ്പോള് നമ്മള് പക്ഷെ ജീവിതത്തില് എന്താണ് എലക്ട്രോണിക്സെന്ന് നമ്മളീ ഫോണൊക്കെ യൂസെയ്യുമ്പോള് മനസ്സിലാവില്ല പക്ഷെ അവിടെ ചെന്ന് പഠിക്കുമ്പോഴത്തേക്കാണ് ഇലക്ട്രോണിക്സ് സംബന്ധമായി എന്തെല്ലാം കംപോണേൻസ് ഉണ്ടെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആ ഒരു ത്രില്ലില് പഠിച്ച് തുടങ്ങിയത് പക്ഷെ പഠിച്ചുതുടങ്ങിയപ്പോള് മനസ്സിലായി എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കീ ടി വി ഒന്ന് ഒരു ടി വി ഉണ്ടാക്കുന്നതിൻ്റെതന്നെ ഒരു ബുദ്ധിമുട്ടും പക്ഷെ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് വരെ നമുക്ക് സിഗ്നലില് കാണുന്ന ലൈറ്റ് വരെ എന്തുമാത്രം ബുദ്ധിമുട്ടി നമ്മള് ഒരു കോഡുണ്ടാക്കി ആ കോഡിൽ നിന്ന് അത് വർക്കിംഗ് ചെയ്ത് എടുക്കുന്നത് ബുദ്ധിമുട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് അതൊരു ഒന്നുമില്ല എന്ന് തോന്നും പക്ഷെ അത് എന്തുമാത്രം വർക്കിംഗ് ചെയ്താണ് അതിന്നിന്നൊരു പ്രോസസ്സിലോട്ട് എത്തണതെന്ന് നമുക്ക് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണ് മനസ്സിലായത് അതുകൊണ്ട് ഏറ്റവും നല്ല കാലഘട്ടമെന്ന് പറയണത് എനിക്ക് ബി ടെക് തന്നെയാണ് എൻ്റെ കോളേജ് ലൈഫും ഞാൻ ആസ്വദിച്ചത് ആ സമയത്താണ് ഒരു ടൂര് പോവുന്നതും പിന്നെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവുന്നതും ഔട്ടിങ് എല്ലാം ഞാൻ സന്തോഷിച്ചത് എല്ലാം ബി ടെക് സമയത്തായിരുന്നു ഫ്രണ്ട്സുമായിട്ട് നമ്മള് ടൂര് പോയതും ഉണ്ടായിരുന്നു നമ്മുടെ ഐ വി എന്ന് പറയുന്ന അതിനും ഉണ്ടായിരുന്നു അത് നമ്മള് തമിഴ്നാട് സെക്ഷനിലൊക്കെ ആയിരുന്നു പോയത് അപ്പോള് ഏറ്റവും കോളേജ് ലൈഫ് നല്ലത് പോലെ എൻജോയ് ചെയ്തത് ബി ടെക് സമയത്തുതന്നെ ആയിരുന്നു അങ്ങനെയായിരുന്നു നമ്മുടെ എൻ്റെ ഒരു ബി ടെക് കാലമെന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ട്രീം തന്നെയായിരുന്നു എനിക്ക് എലക്ട്രോണിക്സ് അതിൽ തന്നെ എനിക്ക് ഈ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് അങ്ങനെയാണീ ഫോണിൻ്റെയൊക്കെ ഇത് പ്രശ്നങ്ങളിലൊക്കെ കുറച്ച് രീതിയിലെങ്കിലും മാറ്റാന് കഴിയുന്നത് ഞാന് ഈ ജീവിതത്തില് ഈ എലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരാന് പറ്റിയതിലും ഞാൻ നല്ല ഹാപ്പിയിലാണ് ഈ കോളേജില് തന്നെയാണ് ഈ ഫ്രണ്ട്സ് ഈ ഡാൻസ് പാർട്ടി അങ്ങനെയൊക്കെ പോവുകയും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോള് നമുക്ക് ആ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ലൈഫില്ലായിരുന്നു എന്നുവെച്ചാല് സ്കൂളില് ആ ഒന്നും ഫ്രീഡമൊന്നും ഇല്ലായിരുന്നു പക്ഷെ കോളേജ് ലൈഫിലാണ് ഫ്രീഡം വന്നത്